ആ ഹലോ ഞാൻ അവിടെ ഫാമിയ ഡോക്ടറെ ഒന്ന് കിട്ടാൻ വഴി ഉണ്ടോ ഫാ മാഡം ഞാൻ രാവിലെ പല്ല് കാണിക്കാൻ വന്നിരുന്നു പല്ല് വേദനയും മോണവീക്കം ഉണ്ടായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ മാഡത്തിനെ ആയിരുന്നു കാണിച്ചത് അപ്പോൾ എനിക്ക് പിന്നെ രാവിലെ മരുന്ന് കഴിച്ചിട്ട് വേദന എനിക്ക് ഒട്ടും കുറവില്ല ഇല്ല ഇല്ല ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ മാഡം പറഞ്ഞില്ലേ തണുത്ത ആഹാരം കഴിക്കാവൂ എന്ന് അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ആ ഞാൻ വീട്ടില് വന്ന് ഒര് പതിനൊന്ന് മണി അങ്ങനെ ആയപ്പോൾ കഴിച്ചത് ആ ഇന്ന് എത്ര മണി വരെ അവിടെ പരിശോധന ഉണ്ട് അഞ്ച് മണിക്ക് അഞ്ച് മണിക്കുള്ളില് വരണമല്ലെ വേദന സുഖമില്ലെങ്കില് ആ പിന്നെ ഇത് വേദന മാറി കഴിഞ്ഞാല് അവിടെ അവിടെ റൂട്ട് കനാൽ ചെയ്യുന്ന ഒരു വഴി ഉണ്ടോ അതേ അതേ

എങ്കിൽ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതാണ് കുറച്ച് നല്ലത് ഒരുമിച്ച് ചെയ്യാമല്ലോ ആ അത് ഞാൻ ചെയ്യാം അത് എനിക്കിത് മാറിയിട്ട് റൂട്ട് കനാൽ ചെയ്യ്താൽ മതി ഈ പല്ല് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വേദന വരുന്നു മോണ വീക്കം വരുന്നു അപ്പോൾ ഈ റൂട്ട് കനാൽ ചെയ്താല് ഇങ്ങനെ ഒന്നും വരില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ ആ ആ അത് ഞാൻ ചെയ്യാം പല്ല് രണ്ടു നേരം തേച്ച് ക്ലീൻ ആയിട്ടൊക്കെ ഞാൻ നോക്കാം ആ ആ അത് ഞാൻ വരാം ആ ശരി എന്നാല് ഓക്കേ